ഹലോ ഹലോ എനിക്ക് എൻ്റെ കുട്ടിൻ്റേ വെഡിങ് നടത്താൻ വേണ്ടിയിട്ടായിരുന്നു വെഡിങ് അടുത്ത മാസമാണ് അപ്പം എല്ലാ കാര്യവും നിങ്ങൾ തന്നെ ചെയ്യുമോ എന്നറിയാൻ വേണ്ടിയിട്ടായിരുന്നു ആ ഓക്കേ ക്യാമറ അതായത് നിങ്ങൾ ഫോട്ടോഗ്രാഫി കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ ചെയ്യുമോ നിങ്ങൾക്ക് തന്നെ ഉണ്ട് അപ്പോൾ എത്രയാവും ഫോട്ടോഗ്രാഫിക്ക് എത്രയാണ് റേറ്റ് വരുന്നത് സൈസ് അനുസരിച്ചിരിക്കും അല്ലേ നമ്മൾ അത്യാവശ്യം വലിയ രീതിയിലാണ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അപ്പോൾ കാറ്ററിംഗ് വർക്കും ഫുഡ് കാര്യങ്ങൾ ഓഡിറ്റോറിയം ഡെക്കറേഷൻ എല്ലാ കാര്യങ്ങളും നിങ്ങൾ തന്നെ ചെയ്യില്ലേ ഫൈവ് ലാക്കിൻ്റെ അടുത്ത് വരും അല്ലേ പൈസ നമുക്ക് കുഴപ്പമൊന്നുമില്ല അപ്പോൾ നല്ല രീതിയിലുള്ള ഫുഡ് കാര്യങ്ങളായിരിക്കണം ആ ആ ബുഫെ ആയിട്ട് നടത്താൻ പറ്റില്ലേ എല്ലാ ടൈപ്പും ഉണ്ടല്ലേ ഓക്കേ ഓക്കേ ആ രണ്ടും കൂടി മിക്സ് ആയിട്ട് മതി കാരണം രണ്ടും കഴിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ അപ്പം നമുക്ക് രണ്ടും കൂടെ മിക്സ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ നമുക്ക് ബിരിയാണി എന്തായാലും വേണം ആ പിന്നെ ഇറച്ചി ഉണ്ടാവില്ലേ നമുക്ക് ബീഫ് ബീഫ് ബീഫേ ആ പിന്നെ പിന്നെ എന്ന് വെച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മെനു ഉണ്ടാവുമല്ലോ

ആ അതൊക്കെ വേണം നല്ല ക്വാളിറ്റിയിൽ എടുത്തോ കുഴപ്പം ഒന്നുമില്ല പിന്നെ വീഡിയോ വീഡിയോഗ്രാഫി ആയിട്ടായാലും കുഴപ്പമില്ല ആ ആ എല്ലാം ആ അത് രണ്ടും വേണം പിന്നെ നമുക്ക് പ്രീ വെഡിങ് പോസ്റ്റ് വെഡിങ് അങ്ങനത്തെയൊക്കെ ഉണ്ടാവില്ലേ അതും കൂടെ നടത്തണം എന്തായാലും ആ അപ്പം ആ എല്ലാത്തിനും കൂടെ ഫൈവ് ലാക്ക് അല്ലേ പറഞ്ഞത് നിങ്ങൾ കല്യാണം അടുത്ത മാസം പതിനഞ്ചാം തീയതി അപ്പോൾ അതിന് എത്തണം ഓക്കേ ഓക്കേ ആ അങ്ങനെയാണെങ്കിൽ ഞാ ഞാൻ നോക്കിയിട്ട് വിളിക്കാം എന്തായാലും റെഡി ആക്കിക്കോ കുഴപ്പമില്ല ഓക്കേ എന്നാൽ